ഓ ആ അത് ഞാൻ ഇന്നലെ അങ്ങോട്ടേക്കൊരു ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സാംസങ്ങിൻ്റെ ആ രാവിലെ കൊണ്ടുവന്നതാണ് ആ ബാറ്ററിയിനെ കുറിച്ചിട്ടെന്തെങ്കിലും എന്താണ് അതിൻ്റെ അഭിപ്രായം അതായത് ആ ബാറ്ററി തീരെ വർക്ക് ആവുന്നില്ല ചാർജർ വർക്ക് ആവുന്നില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സംശയം

ഈ ഫോൺ വാങ്ങിയിട്ട് ഏകദേശം ഒരു നാല് വർഷം ആയെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഇതിന് മുമ്പ് കംപ്ലൈന്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ അടുത്താണ് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്

അതെ മ് ശരിയാക്കുന്നതിൽ പിന്നെ ഇത് യൂസ് ആക്കിയിട്ട് കാര്യം ഇല്ലല്ലോ ഇപ്പോൾ ഏതായാലും ചേഞ്ച് ആക്കുന്നതാണോ ശരി അപ്പോൾ ചേഞ്ച് ആക്കണമായിരുന്നു എങ്ങനെയാണതിൻ്റെ

മൂവായിരം റൂബി അപ്പോൾ അത് എങ്ങനെയാണ് ചാർജറിൻ്റെ ആ ഒരു കാലയളവൊക്കെ എങ്ങനെയായിരിക്കും രണ്ട് വർഷം ഗ്യാരൻറ്റി അപ്പോൾ ഓക്കെ ആ അപ്പോൾ ഒരു ആ ഞാനിന്ന്

ആ കിട്ടുമല്ലേ ഓ ഓക്കെ താങ്ക്സ്